എൻ്റെ അടുത്ത് എല്ലാ കാലാവസ്ഥയിലും വളരുന്ന ചെടികളുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെടികൾ ആയാലും എല്ലാ കാലാവസ്ഥയിലും നിൽക്കണം എന്നില്ല ചില ചെടികൾ ഒത്തിരി മഞ്ഞു വേണ്ട അതായത് ഒത്തിരി വെയിൽ വേണ്ടാത്തതും ഒത്തിരി തണുപ്പ് വേണ്ടാത്തതും ആയിട്ടും ഒത്തിരി ചെടികളുണ്ട് ഇപ്പം ഇൻഡൊറൊക്കെ ഇൻഡോർ പ്ലാൻന്റൊക്കെ എങ്ങനെയായാലും കുറച്ചൊരു തണലത്ത് നിർത്തിയാലും കുറച്ചു വെയില വെയിലത്ത് നിർത്തിയാൽ ഇൻഡോർ മുഴുവൻ ചൊവ്വ അതായത് നശിച്ചു പോകും അതിൻ്റെ ഇലയെൻ ഇല കരിഞ്ഞുപോകും ഇലേൻ്റെ കളർ മാറും അതിന് ഒത്തിരി വെയിൽ വേണ്ടാത്ത ഐറ്റംസൊക്കെയാണ് അപ്പോൾ നമ്മൾ ഒരു ഷെഡ്ഡിലോട്ട് മാറ്റി ഒക്കെയാണ് ഞാൻ അവയെ സംര സംരക്ഷിക്കുന്നത് പിന്നെ ഈ പച്ച ഗ്രീൻ നെറ്റ് ഇട്ടിട്ടുണ്ട് അതിൽ അങ്ങനെ എല്ലാറ്റിനും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടു പോകുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് രക്ഷയില്ലല്ലോ നമുക്കിവിടെ ഭയങ്കര ചൂടാണ് കോഴിക്കോടിൻ്റെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല ചൂടുണ്ട് നല്ല പോലെ ചൂടുള്ള ഒരു ജില്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ആയിരിക്കും അപ്പം എല്ലാ ചെടിയും വളരണമെന്നില്ല നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചുള്ള ചെടികൾ മാത്രമേ നമുക്കിവിടെ കൂടുതൽ വെക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ പറ്റാവുന്ന രീതിയിൽ ഞാൻ എല്ലാ ചെടിയും വെച്ചുപിടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അ പലപ്പോഴും നാശമായി പോകാറുണ്ട് എന്നാലും കുഴപ്പം ഇല്ലാത്ത രീതിയിൽ ഉണ്ടാകാറുണ്ട്